ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയില് ജുഡീഷ്യറി നല്ലൊരു പങ്ക് തന്നെയാണ് ഉള്ളത് അപ്പം അപ്പം അത് ഭരണ നിർവഹണത്തിന് ആയാലും പുതിയൊരു നിയമം സ്ഥാപിക്കാനാണെങ്കിലും അവർക്ക് അതിനകത്ത് നല്ലൊരു പങ്ക് തന്നെ ഉണ്ട് കാരണം അതിലെ എന്തെങ്കിലും അതായത് അനീതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിക്കാനും അതിൻ്റെതായ നിയമങ്ങള് നോക്കി അതിന് വേണ്ട കാര്യങ്ങള് ചെയ്ത് കൊടുക്കാനും ജുഡീഷ്യറിക്കു നല്ലൊരു ജുഡീഷ്യലിന് നല്ലൊരു പങ്ക് തന്നെയാണ് ഉള്ളത് അപ്പം അവര് ഇപ്പം ഒരു പുതിയം പുതിയ നിയമം പാസ്സാക്കുക ആണെങ്കിൽ അതിനെ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്നും അതിൻ്റെ വരാവുന്ന പോരായ്മകളെല്ലാം മനസിലാക്കി ജനങ്ങൾക്ക് എങ്ങനെ എല്ലാം ഉപകാരപ്പെടുമോ അതുപോലെ ആക്കി അത് നിയമം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജനങ്ങളെയും അതായത് രാഷ്ട്രീയ പാർട്ടികളെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലും നല്ല രീതിക്ക് തന്നെ അവര് ശ്രമിക്കുന്നും ഉണ്ട് അപ്പോൾ നിയമങ്ങളൊക്കെ അവര് പരിശോധിച്ച് അവർക്കും കൂടെ നല്ലതാണെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ ആ നിയമം പാസ്സാക്കാനും അത് പ്രാബല്യത്തില് വരുത്താനും സാധിക്കുകയുള്ളു